ആറ് ഏഴ് രണ്ടായിരത്തി ഏഴ് ഏഴ് എട്ട് രണ്ടായിരത്തി എട്ട് ഒമ്പത് പത്ത് രണ്ടായിരത്തി ഒമ്പത് പത്ത് പത്ത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട്